ഹലോ ആ ഹലോ ആ വിനോദേ ആ ഹലോ വിനോദേ ആണോ ആ സോറി സോറി അ എബി ആ ഞാൻ വിളിച്ചതുണ്ടല്ലോ എനിക്ക് ഒരു ആ അതെ എനിക്ക് ഒരു ഓട്ടം പോകാനായിരുന്നു ഫ്രീയാണൊ ഫ്രീയാണൊ ആണോ എനിക്ക് സ്കൂളിലേക്ക് പോവനായിരുന്നു പിള്ളേർക്ക് എക്സാമാണ് അപ്പം ആ എക്സാമാണ് അപ്പം അവർക്ക് ഉച്ചവരയെ ഉള്ളൂ എക്സാം അപ്പം എക്സാം കഴിഞ്ഞിട്ട് അവരെയൊന്ന് കൂട്ടിക്കൊണ്ടു വരാനായിരുന്നു നമുക്ക് ഒരു ഇവിടെ നിന്ന് ഒരു പന്ത്രണ്ടര ആകുമ്പം പോകാം ഞാൻ ഇപ്പം നിൽക്കുന്നത് വീട്ടിലാണ് പുത്തമ്പുരയിലാണ് വീട്ടിലാണ് അപ്പോൾ ഞാൻ മാത്രമല്ല വരേണ്ടത് അപ്പം നമ്മുടെ ഇവിടെ നിന്നുള്ള ആ കിടങ്ങിലെ ആ ജോമോന്റെ പിള്ളാർ ഇല്ലെ അവരേയും കൂടെ ഒന്ന് കൊണ്ടു വരണം അപ്പം ഇവർക്കെല്ലാം ഉച്ചയാകുമ്പം പരീക്ഷ തീരും അ ആ സോണിയ ഉണ്ട് അപ്പം സോണിയയുടേ പിള്ളാരുമുണ്ട് അപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ ഷെയറിട്ട് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു രണ്ട് പേരും ഒരു സമയത്ത് തന്നെയാണ് അതെ ആ പിള്ളാർക്കെല്ലാം ഉച്ചക്ക് എക്സാം കഴിയും ആ എബി എത്ര രൂപയാകും അ അ ആ ശരി ഓക്കെ ഓക്കെ ആ ഞങ്ങൾ സമ്മതിച്ചു ഞങ്ങൾ ഷെയർ ഇട്ടോളാം ഞാൻ എബിക്ക് ഞാൻ അങ്ങ് മുഴുവൻ രൂപയും തന്നോളാം ഞാൻ സോണിയാടൈന്ന് പൈസ മേടിച്ചോളാം കേട്ടൊ അ

ആ ജോയി ചേട്ടൻ പോയായിരുന്നു മാർക്കറ്റിൽ പോയായിരുന്നു പോയിട്ട് വന്നു പിള്ളാരൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നോ ഓ ഉണ്ട് റോഡിലൊക്കെ വെള്ളമാണ് ഞങ്ങളുടെ പറമ്പിലെല്ലാം മൊത്തം വെള്ളമാണ് പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ റോഡിൽ വെള്ളമുണ്ട് കേട്ടോ വണ്ടി ഓടുന്നുണ്ട് ഓട്ടോയ്ക്ക് അകത്ത് വെള്ളം കേറത്തില്ല എന്നാലും റോഡിൽ നല്ലതായിട്ട് വെള്ള ഉണ്ട് ആ ഒന്ന് സൂഷിച്ച് വരണം ആ റോഡിൽ വെള്ളമുണ്ട് കേട്ടോ ആ മഠത്തിന്റെ ഭാഗത്തൊക്കെ നല്ല വെള്ളവൊണ്ട് എന്നാൽ ശരി ഓക്കെ ഓക്കെ ഞാൻ റെഡിയായി നിൽക്കാം ഓക്കെ അ